പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ അഡ്വൈസെയ്യും നല്ലയൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് ഗുരുവിൻ്റെ കീഴിൽ ശിക്ഷണം തുടരുക നിങ്ങളുടെ ആ അവരോട് അഭിപ്രായം ചോദിക്കുക പാടാനുള്ള കഴിവും സ്വറ സ്വരവും നല്ലതാണോ എന്ന് അവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം അവർക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയുള്ളൂ അത് അതനുസരിച്ച് അവരുടെ അഭിപ്രായത്തെ മാനിച്ച് നന്നായിട്ട് പാട്ടുകളെ പ്രാക്ടീസെയ്യാ പ്രാക്ടീസ് ചെയ്ത് എത്രമാത്രം പ്രാക്ടീസെയ്യുന്നോ അത്രമാത്രം ഒരു നമ്മുടെ സ്വരവും ഇത് പാട്ടും നന്നായിരിക്കും അല്ലേൽ പണ്ടേ പറയാറുണ്ടല്ലോ ഗാ പാടിത്തെളിയണമെന്ന് എന്ന് പറഞ്ഞപോലെ പാടിപ്പാടി നമ്മള് തെളിയണം തെളിഞ്ഞാലേ ഉള്ളൂ അങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കില് ഒരു ദിവസം നമുക്കൊരു സുപ്രഭാതത്തിൽ പോയി പാടണമെന്നു വിചാരിച്ചാല് പോയി പാടാൻ പറ്റില്ല അപ്പോള് ഇതാണ് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്